നമ്മുടെ ഇടയിൽ ഗ്രാമം ഗ്രാമങ്ങൾ ഗ്രാമങ്ങളും ഗ്രാമജീവിതവും വളരെ ശ്രദ്ധേയമായ ഒന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വളർന്നു വന്നതാണ് ഇപ്പോൾ ഗ്രാമത്തിലല്ല താമസിക്കുന്നതെങ്കിൽ പോലും ഗ്രാമ ജീവിതം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗ തിയാണ് ഗ്രാമങ്ങളിലെ ജീവിതം വളരെ നമുക്ക് അറിയാം നമ്മൾ ഒരു ഗ്രാമത്തിൽ ഏത് ഒരു മൂലക്കാനെങ്കിലും നമ്മുടെ സഹര്യമോ വസ്തുത ഉണ്ടായ ഒരു മരണമോ അല്ലെ ഒരു വിവാഹമോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ അതിനെ മറ്റേ തലയ്ക്ക് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ വാർത്തകൾ പ്രചരിക്കും അതൊരു ഗ്രാമത്തിൽ പ്രത്യേക രീതി അതാണ് ഒരു പട്ടണത്തിൽ താമസിക്കുന്നവരെ പോലെ അല്ല ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർ തമ്മിൽ എപ്പോഴും വളരെ ഐക്യപ്പെട്ട് വളരെ സഹകരിച്ച് നമ്മുടെ ഈ പരസ്പരമുള്ള വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വളരെ വളരെ പെട്ടെന്നാണ് ഈ വാർത്ത നമ്മുടെ മാനുഷിക മാധ്യമങ്ങളിൽ കൂടിത്തന്നെ എല്ലാ മേഖലകളിലുമെത്തുന്നത് പക്ഷെ എങ്കിൽ പോലും അവിടെയൊക്കെ പഴയ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഗ്രാമങ്ങൾളൊക്കെ ഇതുപോലെ കുടുംബങ്ങൾ വളരെ സന്തോഷപ്രദമായിട്ട് ജീവിക്കുന്നെങ്കിൽ പോലും പല ഭാഗങ്ങളിലുമൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് എനിക്ക് എന്റെ ഓർമ്മയിൽ വരുന്ന വിഷയം ഞങ്ങൾ താമസിച്ച എന്റെ വീടിനും എന്റെ വീടും അതേ പോലെ എൻ്റെ അടുത്തുള്ള വീടും തമ്മിലുള്ള വിഷയം അത് ചെറിയ ഒരു വഴിപ്രശ്നമായിട്ടാണ് അത് രൂപപ്പെട്ടത് എന്റെ ഭവനം ഉൾക്കൊള്ളുന്ന ഭാഗത്ത് അതിനോട് ചേർന്ന് ഞങ്ങളുടെ വല്യപ്പൻ കൊടുത്ത സ്ഥലത്ത് ഒരു ചെറിയ ചാപ്പലുണ്ടായിരുന്നു ആ ചാപ്പലും ഞങ്ങളുടെ വീട് ഉൾക്കൊള്ളുന്ന സ്ഥലമെല്ലാം അടുത്ത പുരയിടങ്ങള അടുത്തടുത്ത പുരയിടങ്ങള അപ്പുറത്തേയും ഇപ്പുറത്തേയും പുരയിടങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ പള്ളി അവിടെ രൂപീകൃതമായപ്പം ഞങ്ങൾ താമസിച്ച ആ വീടിന്റെ പുറകിൽ ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഇതുപോലെ നടക്കുന്നതിനും അവർക്ക് പൊതുസ്ഥലത്തേക്ക് വരുന്നതിനുമൊക്കെ ഒരു വഴി ഇട്ടിട്ടാണ് അവിടെ ദേവാലയം പണിതതും ഞങ്ങളുടെ വസ്തു നിൽക്കുന്നതും എങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച എന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹിച്ചത് അതിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ടായി പുറകിൽ താമസിച്ച ആൾക്കാർക്ക് ഞങ്ങളുടെ ഈ കൊടുത്ത വഴി അല്ലാതെ അതിന്റെ മറു വശത്തു കൂടെ ഞങ്ങളുടെ തന്നെ പുരയിടത്തിന്റെ അതിരു പറഞ്ഞാൽ തെക്കെ സൈഡിൽ കൂടെ ആണ് ഇപ്പം കൊടുത്തിരുന്ന വഴിയെങ്കിലും വടക്കെ സൈഡിൽ കൂടെ ഒരു വഴിയും കൂടെ വേണമെന്നും പറഞ്ഞു ഇതുപോലെ ഞങ്ങളേത് വീട് പറമ്പിന്റെ പുറകിലുള്ള ആൾക്കാർ ശ്രമിച്ചിരുന്നു അവർ അങ്ങനെയൊന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തരാൻ കഴിയില്ല ഞങ്ങളുടെ വസ്തുവിന്റെ ഭാഗത്ത് തന്നെയാണല്ലോ ഒരു വഴി തന്നിരിക്കുന്നത് ആ ഭാഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം പത്തോ പന്ത്രണ്ടോ വീട്ടുകാരാണ് ആകെ ഉള്ളത് അവരെല്ലാം ബാക്കി എല്ലാവരും ഉപയോഗിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആയിട്ട് ഒരു വഴി പ്രത്യേകിച്ച് തരേണ്ട കാര്യമില്ല ഒരു നീതിയല്ലല്ലോ എന്ന് പറഞ്ഞു ധരിപ്പിച്ച് ഞങ്ങൾ അതിനകത്ത് രാഷ്ട്രീയമൊക്കെ ഉയർന്നിട്ട് മറ്റു കാര്യങ്ങളുണ്ടായി ഒരു സംഘർഷാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി അവിടെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും നമുക്ക് ഇടയിൽ മാനുഷികത നമുക്ക് എല്ലാവർക്കുമുണ്ട് വീറും വാശിയൊക്കെയുണ്ട് അപ്പം പൊതുവായി ഞങ്ങൾ അതിനെ കുറിച്ച് ഞങ്ങളുടെ കുടുംബവും ആയി ബന്ധപ്പെട്ട് കുടുംബത്തിലെ അധികാരികൾ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു വഴിയുടെ ആവശ്യകത ഇല്ല ഞങ്ങളുടെ അവിടത്തെ മറ്റേ രാഷ്ട്രീയ പ്രവർത്തകരെയും നേരിൽ ഈ ബാറിന്റെ രംഗത്ത് നിൽക്കുന്നവരെയുമൊക്കെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആഹ്വനം അതായിരുന്നു അതിന്റെ കാര്യമില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അപ്പം അങ്ങനെ വന്നപ്പം ഞങ്ങൾ അതിന് ശ്രമിച്ചില്ല പിന്നെ അവസാനം ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ കോടതി പോവുകയും കോടതിയിൽ നിന്നുള്ള ആജ്ഞ അനുസരിച്ചാണ് പിന്നെ കാര്യങ്ങളൊക്കെ നടന്നത് ഒടുവിൽ ഞാൻ മറ്റേ കമ്മീഷനെ വച്ചു കമ്മീഷൻ വന്ന് എൻക്വയറി നടത്തി അത് ഹിയറിങ്ങ് ഹിയറിങ്ങിന് വിളിച്ചെങ്കിലും എതിർ പാർട്ടിക്ക് എതിർ പാർട്ടി അതിന് സഹകരിച്ചില്ല അപ്പം അന്ന് അത് എക്സ് പാർട്ടി വിധിയായി അങ്ങനെ വസ്തുവിന്റെ ആ വഴിയുടെ പ്രശ്നം അവസാനിപ്പിച്ചു അവർ എഴുതിയൊക്കെ കൊടുത്തപ്പം അവർ തന്നെ വന്നു കമ്മീഷൻ നിർദ്ദേശാനുസരണം അഡ്വ അഡ്വക്കേറ്റ് കമ്മിഷനാണ് അന്ന് കമ്മീഷൻ വന്നു അവരുടെ നിർദ്ദേശാനുസരണം നിയമപരമായിട്ട് അതെല്ലാം പരിഹരിച്ചു തന്നു അതെല്ലാം വേലിയെല്ലാം കെട്ടി അതെല്ലാം അടച്ച് തന്നു അതിന് ശേഷം അവർ പഴയ വഴിയിൽക്കൂടെ തന്നെ സുഖമായിട്ട് നടക്കുന്നു ആദ്യമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ഒരു മനസ്സുകൊണ്ട് ഉണ്ടായിയിരുന്നു നോക്കാനും പിടിക്കാനും പക്ഷെ എങ്കിലും അതിനുശേഷവും അതെല്ലാം മാറി ഇതുപോലെ എല്ലാവരും പഴയ ആൾക്കാർ തമ്മിൽ വളരെ സൗഹൃദവും വളരെ സ്നേഹവുമൊക്കെയാണ് ഇപ്പം കാണുമ്പോഴും ഒക്കെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തിരക്കാൻ തന്നെയും ആർക്കും മടിയില്ല അത് ദൈവ കൃപയായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെയാണ് ഞാൻ പ്രശ്നങ്ങൾ തീർത്തത്